എല്ലായിടത്തും ഇന്ന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങള് എൻ്റെ എൻ്റെ പ്രദേശം അങ്ങനെ ഇല്ല എന്നാലും അമ്പലങ്ങളിലൊക്കെ ഒരുപാട് ആഘോഷങ്ങളുണ്ടാവും ഓരോ മഹോൽസവം തിരുമഹോൽസവം അങ്ങനെപറഞ്ഞിട്ട് ഒരുപാട് ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട് ഏത് ആ ഒരു സമയത്ത് മതപരമായിട്ട് ഒരുപാട് ആൾക്കാറ് ഒത്തി ക എത്തിചേരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ അനുവാദം ലഭിക്കാറുണ്ട് എന്ന എന്നാൽ കേരളത്തിൽ തൃശൂർപൂരം അത്പോലെ വയനാട്ടിലെ അത്പോലെ ഒരു വാണിയംകാവ് മഹോൽസവമൊക്കേ നടക്കാറുണ്ട് അവിടെയൊക്കെ ഉൽസവങ്ങൾ നടക്കുമ്പോൾ ഏത് മതക്കാർക്കും ഏത് ജാതിക്കാർക്കും എല്ലാവർക്കും അനുവാദം നൽകുന്നുണ്ട് എങ്കിൽ അമ്പലങ്ങളിലൊന്നും അനുവാദമില്ല എന്നാൽ അത് കാണാന് അവടെപ്പൊരൂപാട് പർപാടികളും ഇപ്പോൾ വൈലത്തൂർ മഹോൽസവത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട് അതെന്ന് പറയുമ്പോൾ വലിയ ഗാനമേള അത്പോലെ കുട്ടികൾക്ക് കേറാൻപറ്റിയ പാർക്കുകള് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാര് പോകാറുണ്ട്